ആ പറഞ്ഞോ ഏതാണ് ആ ആ ആക്കാമല്ലോ

നിങ്ങൾ ആ വർക്കല അല്ലേ പോകേണ്ടത് അന്നേരം പിന്നെ കുട്ടനാട് വർക്കല രണ്ടും രണ്ട് സൈഡാണ് അതെയല്ലേ കുട്ടനാട് പോകുകയാണെങ്കിൽ നമുക്കൊരുപാട് എന്താ പറയുന്നത് ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ഒരുപാടുണ്ട് നമുക്ക് കാണാനൊക്കെയാണെങ്കിൽ തന്നെയും പിന്നെയവിടെ താമസിക്കാനാന്നെങ്കിലും നല്ല നല്ല ആംബിയൻസാണ് അതെയതെ അതെയതെ നല്ലതാണ് നല്ലതാണ് എല്ലാം എല്ലാമുണ്ട് അവിടെ കൂടുതലും ആൾക്കാർ ഈ ടൂറിസ്റ്റുകൾ വരുമ്പോൾത്തന്നെ കൂടുതലും ഈ ഷാപ്പിലൊക്കെയാണ് പോയി കഴിക്കാറ് ആ അത്യാവശ്യം നല്ല നല്ല ഫുഡാണ് എല്ലായിടവും പിന്നെ ബോട്ടിങ്ങിന് ബോട്ടിങ്ങിനൊക്കെ പോവുമ്പോൾത്തന്നെ അവരേതെങ്കിലും ഒരു ഇതിൽ സൈഡിലുള്ള ചെറിയ ചെറിയ ചെറിയ കടകളൊക്കെ കാണും അപ്പം ബോട്ടിങ്ങിന് പോകുമ്പം തന്നെയായാലും അവരതിൽ സ്പോട്ടിൽ നിർത്തിയും അവിടുന്ന് ഫുഡ് കഴിക്കണേൽ ഒക്കെ എന്താണ് സാധനം വേണ്ടതെന്ന് വെച്ചാൽ അവരടുത്ത് പറഞ്ഞാൽ മതി അവരന്നേരം തന്നെ ചെയ്ത് തന്നോളും ആ അതെ എല്ലാം എല്ലാം ഓക്കെയാണ് ഓക്കെയാണ് അവിടെ ഫുഡുണ്ട് വലിയ വലിയ എമൗണ്ടൊന്നും ആവത്തില്ല ആ പിന്നെ നിങ്ങൾക്ക് ഏത് രീതിയിൽ ഏതാണ് അതെയതെ ആ ഫാമിലിയൊക്കെ ആവുമ്പോൾ അങ്ങനെ ഒരു ഫിഫ്റ്റീനൊക്കെ ആവും അത്രയാവും അത്രയൊക്കെയേ ഉളളൂ ആ സ്ഥലം